ഹലോ ഇത് സ്ഥലത്തിൻ്റെ ബ്രോക്കർ അല്ലേ ആ എനിക്കൊരു പത്ത് സെന്റ് സ്ഥലം വേണമായിരുന്നു കോഴിക്കോട്

പത്ത് വേണമായിരുന്നു ഇങ്ങ് ടൗണിൽ ആയിരുന്നെങ്കിൽ ആയിരുന്നു നല്ലത് അത് ഒന്നുംകൂടി ഒന്ന് നോക്കിയിട്ട് കുറച്ച് കുറഞ്ഞ റേറ്റിലുള്ളത് ആ ഒരിരുപത്തഞ്ച് ആ വണ്ടി വണ്ടി ആ ആ ആ അത് അതുകഴിഞ്ഞ്

ആ ഞാൻ മറ്റന്നാളായിട്ട് വന്നാൽ മതിയോ ആ ആ ആ ആ